ഹലോ അനു ടീച്ചറല്ലേ ആ ടീച്ചറെ ഞാൻ ആല്ഫിയായിരുന്നു ആ ടീച്ചറെ എനിക്ക് കഥകളി പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ടീച്ചറ് പഠിപ്പിക്കുന്നുണ്ടെന്ന് അറിഞ്ഞായിരുന്നു അപ്പോൾ ആ അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ അറിയാനായിട്ടായിരുന്നു വിളിച്ചത് അപ്പം ആല്ഫി ആ എന്തേ കേട്ടില്ല ഇല്ല പഠിക്കാന് ഇല്ല പഠിക്കാന് തുടങ്ങാനായിട്ടായിരുന്നു ആ എനിക്ക് ഒന്നീ കള്ച്ചറിനെ പറ്റി അറിയാനും പിന്നെ ആ ഇത് പ്രാക്റ്റീസ് ചെയ്യണമെന്നുണ്ട് ഡാന്സ് പഠിക്കണം എന്നുണ്ട് കഥകളിയെ സ്റ്റേജിലൊക്കെ അരങ്ങേറ്റം ചെയ്യണം എന്നുണ്ട് അപ്പോൾ ഞാന് അടുത്ത ആഴ്ച്ച തൊട്ട് തുടങ്ങാം എന്ന് ഓര്ത്തോണ്ടായിരുന്നു ടീച്ചറ് ഫ്രീ ആയിരുന്നോ വേറെ സ്റ്റുഡൻസുണ്ടോ ആ ആ എത്ര രൂപയായിരുന്നു ഫീസെത്രയായിരുന്നു എങ്ങനെയാണ് ഈ പതിനായിരവും പന്ത്രണ്ടും തമ്മിൽ ഉള്ള വ്യത്യാസം

ആണോ ഈ പത്ത് രൂപ എന്നുള്ളത് കുറച്ച് കൂടുതലല്ലേ കുറക്കാന് കഴിയുമോ നിങ്ങൾക്ക് അറിയാൻ സ്റ്റുഡൻറ്റായിരുന്നു ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വരാനായിട്ട് ആണോ ഓക്കെ അങ്ങനെ ആണെങ്കിൽ അടുത്ത ഇനി തുടങ്ങുന്ന ദിവസം കാണാം അപ്പോൾ ഇതിന് കോസ്റ്റ്യൂമ് അങ്ങനത്തെ എല്ലാം ആദ്യം തന്നെ വേണോ അതെയോ പിന്നെ മതിയോ ആ അതല്ല ആദ്യം തന്നെ പ്രാക്ടീസ് ചെയ്യാന് തുടങ്ങുമ്പോൾ ഇതിട്ട് ഡ്രസ്സ് ഇട്ട് തന്നെ ചെയ്യണോ അതെയോ പിന്നെ വാങ്ങിച്ചാൽ മതിയോന്നാ ഉദ്ദേശിച്ചത് ഇത് നല്ലത് എവിടെന്നായിരുന്നു വാങ്ങുന്നത് അങ്ങനെ കട വല്ലതും അറിയാമോ നല്ലതായിട്ട് കിട്ടുന്നത് കട്ടപ്പന അതിനൊക്കെ ഏകദേശം എല്ലാം കൂടെ എത്ര രൂപയാകും ആ

എത്രയാണ് വരുന്നത് അയ്യായിരം അത് നാളെ തന്നെ ഞാന് തന്നേക്കാം അപ്പോൾ ടൈം എപ്പോഴത്തേക്കിനാണ് വരുന്നത് എനിക്ക് അഞ്ച് മണി വരെ ക്ലാസുണ്ടായിരുന്നു ക്ലാസ് കഴിഞ്ഞാലേ വരാന് പറ്റുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞ് എത്ര എത്ര മണി തൊട്ടാണ് ആറ് മണി തൊട്ട്

ആ അപ്പോൾ ആ അടുത്ത ആഴ്ച വന്നേക്കാം ആറ് രൂപയോ ആ പിന്നെ വേറെ എന്തെങ്കിലും കൊണ്ട് വരേണ്ട വല്ലതും ഉണ്ടോ വരുമ്പോൾ വേറെ എന്തെങ്കിലും വേറെ സ്റ്റുഡൻസൊണ്ടോ അതോ ഞാന് ഒറ്റക്കേ ഉള്ളോ

കേട്ടില്ല അല്ല കളിക്കാന് ആഗ്രഹമുണ്ട് മത്സരത്തിലും പങ്കെടുക്കണമെന്നുണ്ട് കളിക്കാൻ ആഗ്രഹം ഉണ്ട്

ആ ഒരു മാസത്തതിനല്ലേ ഫീസ് അപ്പം എല്ലാ ദിവസവും ക്ലാസൊണ്ടോ അതെയോ ശനിയും ഞായറും ഉണ്ടോ ഇല്ലയോ എങ്ങനെയാണ്

ലീവൊണ്ടോ അതെയോ എല്ലാ ദിവസവും ഡാന്സ് പ്രാക്റ്റീസൊണ്ടോ ശനിയാഴ്ച വരെ ഉള്ളു ആ ഓക്കെ മിസ്സേ താങ്ക് യൂ